ഈ കാലഘട്ടകൽത്തിൽ എല്ലാം കച്ചവടമാണല്ലോ അതായത് വ്യവസായം സാങ്കേതിക വിദ്യ ഇത്തരത്തിലുള്ള നമ്മുടെ കലകളെയെല്ലാം വളരേയധികം സ്വാധീനിക്കുന്നുണ്ട് ഓൺലൈൻ ആയിട്ട് ഇന്നത്തെ കാലത്ത് ആർക്കും ഒന്നിനും സമയമില്ല എല്ലാവരും അവരുടെ ദൈനം ദിന ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന സമയത്ത് മറ്റ് കലകൾ ആസ്വദിക്കാനോ അതുപോലെ തന്നെ അവ പഠിക്കാനോ ഒന്നും സമയം കിട്ടാറില്ല അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതേപോലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങള് പ്രകാരം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചാല് അവർക്ക് കൂടുതലും അതിനോ അതുവായി മിംഗിൾ ചെയ്ത് പോവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഏ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ ഓൺലൈൻ നൃത്ത പരിശീലനങ്ങളും ഓൺലൈൻ ആയിട്ടുള്ള മ്യൂസിക് പരിശീലനങ്ങളും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളർന്ന് വരുന്ന തലമുറയെ തലമുറ വളരെയധികം ഉപയോഗിക്കാറുണ്ട് അതൊര് മാർക്കറ്റിംഗ് തന്ത്രം എന്നതിനുപരി ഒരുപക്ഷേ നമ്മളിൽ കല ആസ്വാദകർക്കും അത്പോലെ കലകളെ അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉപകാരപ്രദമായ ഒന്നാണ് ഒന്നാണെന്ന് കൂടി ഞാൻ വിശ്വസിക്കുന്നു